ഡ്രൈവിംഗ് അറിയാത്തവർക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊടുക്കാന്നുള്ളത് ഒരു പിന്നെ ഗതാഗത യാത്രാ മാർഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ല നടപടിയാണ് അല്ലെങ്കിൽ ഒരാളെ ആശ്രയിച്ചിട്ട് വേണമല്ലോ നമുക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോകണമെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിൽ പോവാന് ഹോസ്പിറ്റലിൽ പോവാന് ഒക്കെ നമുക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ പറ്റില്ലല്ലോ അപ്പോള് ഡ്രൈവിംഗ് പഠിപ്പിച്ചതിനുശേഷം നമ്മള് അവർക്ക് പിന്നെ ഗവർണ്മെന്റിന്റടുത്തുനിന്ന് സബ്സിഡി നിരക്കിൽ ഒരു ടൂ വീലർ അല്ലെങ്കില് ത്രീ വീലർ ഒരു ഓട്ടോ റിക്ഷ വാങ്ങിയാൽ ആ പ്രദേശത്തെ എല്ലാ ഞങ്ങള് പിന്നെ കൂട്ടായ്മയിലെ ഗ്രാമീണ രായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ആ ഒരു ഓട്ടോയിൽ തന്നെ പോവാമല്ലോ അപ്പോള് ഒരാൾക്ക് ഒരു വരുമാനമാർഗ്ഗവും ആവും എല്ലാവർക്കും യാത്രയും ചെയ്യാം അങ്ങനെ ഓട്ടോ റിക്ഷ അതുപോലെ വാൻ ബസ്സ് അങ്ങനെ ഈ ഒരു എല്ലാവർക്കും അങ്ങനൊരു സംഭവം ഡ്രൈവിംഗ് പഠിക്കുന്നതിലൂടെയും നമുക്ക് പിന്നെ ഗവർണ്മെന്റ്റില്നിന്ന് സബ്സിഡി കിട്ടിയാല് ഉപയോഗപ്പെടുത്തി നമുക്ക് നല്ലൊരു മെച്ചപ്പെട്ട പിന്നെ ഗതാഗത യാത്രാ മാർഗ്ഗങ്ങൾ നാടിനുവേണ്ടിയിട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ